ആ ടി വിയിൽ ചർച്ചകള് കാണാറുണ്ട് എങ്കിലും വളരെ കുറവായിട്ടേ ഉള്ളൂ പിന്നെ അവതാരകരുടെ പേര് ശ്രീകണ്ഠൻ നായര് അതുപോലെ സാനി പ്രഭാകരൻ ഇത്തരത്തിലുള്ള അവതാരകരെ അറിയാം പശ്ചാത്തലത്തിലുള്ള ചർച്ചകളൊരു സമൂഹത്തിനുപകാരപ്പെടുന്ന ചർച്ചകളാണെന്നതിലെനിക്ക് അഭിപ്രായമില്ല കാരണം ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോള് അത് ആ വിഷയം ചോദ്യമുന്നയിക്കുന്നവരാ ചോദ്യത്തിനുത്തരം പറയേണ്ടവരും അത് അതിൻ്റെ ശരിയായ ഉത്തരം പറയാനുള്ള സമയം കൊടുക്കാതെ വരുകയും വീണ്ടും അടുത്ത ചോദ്യമായിട്ട് ചർച്ചാവതാരക വരുന്നതും എല്ലാം പല പ്രാവശ്യം കാണാന് ഇട വന്നിട്ടും ഉണ്ട് അതത്ര അതുകൊണ്ട് ആ ചർച്ച കൊണ്ട് സമൂഹത്തിനൊരു ഗുണം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ടി വി ചർച്ചകളും അത്തരത്തിലുള്ള ഇതൊക്കെ തന്നെയാണ് കൂടുതലും